അതേ ആരാണ് സംസാരിക്കുന്നത് ആ പറഞ്ഞോളൂ ചെയ്യാമല്ലോ ചെയ്യുന്നുണ്ടല്ലോ യെ വൈ ആ പൈപ്പ് വെളിയിലാന്നോ അതോ ബാത് റൂമിനുള്ളിലാന്നോ ഓ അത് ശരി ആ അത് എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണെന്നറിയാമോ ഒന്നര ഇഞ്ച് ആ അപ്പം പൊട്ടീട്ടുണ്ടെങ്കിൽ അവിടെ പൈപ്പ് മാറ്റി വെയ്ക്കണം ആ ആ ഞാൻ വൈകിട്ട് ഞാൻ ഇന്ന് വൈകിട്ട് വിടാൻ ഞാൻ വിടാം ആളിനെ വിടാം അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം ആ അങ്ങനുണ്ട് ആ ഇപ്പം ആയിരം രൂപ ശമ്പളം ഒക്കെയാണ് എങ്കിലും പള്ളീലെ അല്ല്യോ അതുകൊണ്ട് കുറച്ച് കുറച്ച് ചെയ്യാം അപ്പം അവിടെ മെറ്റീരിയൽസുണ്ടോ അവിടെ

അപ്പം അപ്പം ഞാൻ നോക്കട്ടെ ഒന്നര ഇഞ്ച് പൈപ്പ് എത്ര മീറ്റർ വേണ്ട രണ്ട് മൂന്ന് മീറ്റർ വേണമായിരിക്കും ഓക്കേ പി ആ സോൾവെൻറ്റ് ആ ജസ്റ്റ് അത് ഒട്ടിക്കാനുള്ള സോൾവെൻറ്റ് വേണം പിന്നെ ഫിറ്റിംഗ്സ് ബെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫിറ്റിംഗ്സ് വാങ്ങിക്കണം എല്ലാം കൂടെ ഞാനിപ്പോൾ വന്ന് നോക്കാം നോക്കീട്ട്

ആ കുഴപ്പമില്ല ആ അത്യാവശ്യല്ല്യയോ അപ്പം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് ഫിറ്റ് ചെയ്തോളാം ആ ബില്ല് വാങ്ങിക്കാം ബില്ല് വാങ്ങിക്കാം ബില്ല് വാങ്ങിക്കാം ആ ഓക്കേ ഓക്കേ അന്നാന്നാന്നാന്ന് ആന്ന് ഭക്ഷണമൊന്നും കൊടുക്കണ്ട പിന്നെ പിന്നെ വേണമെങ്കിൽ കൂടെ വരുന്ന ആൾക്ക് ഒരു ചായ കൊടുത്താൽ മതി ഏത് ഒരു പണിയുടെ അനുസരിച്ചാണ് മണ്ണൊക്കെ മാറ്റാനുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണ് മാറ്റണം പിന്നെ പൈപ്പ് ജോയിൻറ്റ് ചെയ്യണം പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നതിൻ്റെ എല്ലാം കൂടെ കുഴപ്പമില്ല പള്ളീടെ അല്ല്യോ അതോണ്ട് കുറച്ച് ചെയ്യാം കൂടുതൽ വാങ്ങിക്കേല അത് പണി ചെയ്തിട്ടെ പറയാൻ ഒക്കത്തുള്ളു നമ്മളിപ്പം ഇത്ര ഒരു റേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു പിന്നീട് പണി കൂടുതലാണ് അങ്ങനാന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല കുറച്ചേ പണിയുളെളങ്കിൽ അത് കുറച്ചേ വാങ്ങിക്കത്തുള്ളു അഡ്ജസ്റ്റെ ചെയ്യാം അഡ്ജസ്റ്റെ ചെയ്യാം തീർച്ചയായും ഓക്കേ താങ്ക് യൂ ഉണ്ടൊണ്ടൊണ്ടൊണ്ട് നല്ല പണി അറിയാവുന്നവരുണ്ട് എൻ്റെ കൂടെ ഉണ്ട് ആ ഓക്കേ ഓക്കേ താങ്ക് യൂ ഓ ഓക്കേ ഓക്കേ ഓക്കേ അച്ചോ ഓക്കേ വരാം ഓക്കേ ഓക്കേ താങ്ക് യൂ